ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്കുകൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ താജ് മഹൽ മീനാക്ഷി ക്ഷേത്രം ഉണ്ട് മൈസൂർ പാലസ് കുത്തബ് മിനാർ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ പിന്നെ ചെങ്കോട്ട നമ്മുടെ ജയ്പൂരിൽ ഉള്ള ഹവാ മഹൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാടുണ്ട് ഇനിയും ഇപ്പോൾ ഇതിനകത്ത് ഓരോന്നിനെ പറ്റി പറയുകയാണെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് താജ് മഹലാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏഴ് അത്ഭുതങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നാണ് താജ് മഹൽ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ ആണ് അദ്ദേഹമാണ് അത് എന്ത് ചെയ്യുന്നത് ഭാര്യയുടെ ഓർമ്മക്കായി ഓർമ്മക്കായിട്ട് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ ഒരു ലോകാത്ഭുതത്തെ കാണാൻ ഒരുപാട് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് അവിടെ താജ് മഹലിൽ വരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നല്ല സുന്ദരമായൊരു പ്ലെയ്സ് ആണ് നമ്മുടെ ഫോട്ടോയിൽ ഒക്കെ കാണുമ്പോൾ നേരിട്ട് കാണണം എന്നുണ്ട് പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ നമ്മുടെ കർണ്ണാടകയിലെ മൈസൂർ പാലസ് മൈസൂർ പാലസിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഏറ്റവും നല്ലൊരു വ്യു അല്ലെങ്കിൽ അവിടെ നൈറ്റ് ഷോ ഉണ്ട് ലൈറ്റ് ഷോ അവിടെ രാത്രി ഇങ്ങനെ അവർ മൈസൂർ പാലസിൽ ഫുൾ അവിടെ ലൈറ്റ് ആയിരിക്കും നല്ല രസമാണ് കാണാൻ അതിൻറെ കൂടെ തന്നെ അവരെ കുറച്ചു മ്യൂസിക് ഒക്കെ ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ പകൽ പകലും പോയി കണ്ടിട്ടുണ്ട് നൈറ്റും പോയി കണ്ടിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് എസ്സ്പെഷലി നൈറ്റ് പോണം അവിടെ ലൈറ്റ് ഷോ ഉള്ള ദിവസം പിന്നെ പറയുകയാണെങ്കിൽ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ വളരെ പ്രശസ്തമാണ് അപ്പോൾ ഒരുപാട് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ ആണെങ്കിൽ അല്ലെങ്കിൽ സഞ്ചാരികളാണെങ്കിലും വഴിയോരക്കച്ചവടം ൽ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഇവർക്കൊക്കെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈയിലാണ് പിന്നെ ഹവാ മഹൽ എൻ്റെ ലാപ്ടോപ്പിലെ വാൾപേപ്പർ ആണ് ഹവാ മഹൽ അതും എനിക്ക് നേരിട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതിനകത്ത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി എഴുനൂറ്റി എഴുപത്തി ഒമ്പതിൽ മഹാരാജാവ് പ്രതാപ് സിങ് ഈ ചുവന്ന പിങ്ക് മണ്ണ് കല്ലുകളിൽ നിന്നും നിർമ്മിച്ചെടുത്തതാണ് ആ അഞ്ചുനിലകൾ ഏറ്റവും അട്രാക്ഷൻ അതാണതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കുത്തബ് മിനാർ കുത്തബ് മിനാറിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും എന്താണ് പറയുക ഉയരം കൂടിയ ടവറുകളിൽ ഒന്നാണ് കുത്തബ് മിനാർ നമ്മുടെ ഇന്ത്യയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അടുത്ത ഇത് ഇതെല്ലാം എന്താണ് പറയുക പ്രധാനമായിട്ടും ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്കുകളാണ് അതുപോലെ തന്നെ എന്താണ് പറയുക വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന പ്ലേസസ് ആണ് വേറെയും ഉണ്ട് എന്നാലും പ്രധാനപ്പെട്ടത് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നുവരുന്നത് ഇവയൊക്കെയാണ് പിന്നെ നമ്മുടെ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും വിനോദസഞ്ചാരികളെ അട്രാക്ട് ചെയ്യുന്നത് എന്താണ് പറയുക ബേക്കൽ കോട്ടയുണ്ട് നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ടയുണ്ട് പിന്നെ വിനോദ സഞ്ചാരികളെ ഏറ്റവും ഒരുപാട് അട്രാക്ട് ചെയ്യുന്നത് മൂന്നാർ വർക്കല ബീച്ച് പിന്നെ ലൈറ്റ് ഹൗസ് കോവളത്തെ ഗുരുവായൂർ ടെമ്പിൾ തിരുവനന്തപുരത്തെ പത്മനാഭൻ സ്വാമി ടെമ്പിൾ പിന്നെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഇവയൊക്കെയാണ് കേരളത്തിൽ ഇനിയും ഉണ്ട് എന്നാലും കേരളത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് കനകക്കുന്ന് കൊട്ടാരം കവടിയാർ കൊട്ടാരം ഇവയൊക്കെയാണ് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലൈസും കൂടെയാണ് കേരളം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഒരു പ്രകൃതി ഭംഗിയെന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇവിടെ എന്തൊക്കെയുണ്ട് മലകളുണ്ട് കായലുകളുണ്ട് കടലോരങ്ങളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ വന്യമൃഗ സങ്കേതങ്ങളുണ്ട് പിന്നെ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്ലേസ് ഇത് ഇത് കൂടെ ഞാൻ ഈ പറഞ്ഞ പ്ലേസസ് അല്ലാതെ ഇനിയും ഒരുപാട് പ്ലേസസ് എന്ത് ചെയ്യുന്നുണ്ട് വിനോദ സഞ്ചാ സഞ്ചാരികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്സ് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ അട്രാക്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ടെമ്പിൾ അത്രയും ഫേമസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ് പറയുക അവിടുത്തെ അപൂർവ്വമായിട്ടുള്ള നിധി ശേഖരമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഇങ്ങനെ എന്താണ് പറയുന്നത് ആഗോളതലത്തിലേക്ക് അതിൻ്റെ ശ്രദ്ധ പോവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് പൂവാറുണ്ട് പിന്നെ നമ്മുടെ മൃഗശാല പിന്നെ കനകക്കുന്ന് കൊട്ടാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കുതിര മാളിക അവിടെയൊക്കെ നല്ല നല്ല നല്ല പ്ലേസസ് ആണ് അതൊക്കെ പൊന്മുടി പൊന്മുടിയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട് നല്ല വ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ ഈ മലയിൽ ഒ മലയുടെ മുകളിലൊക്കെ ചെന്നിട്ട് ടോപ്പ് വ്യൂ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ആണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് പൊന്മുടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പിന്നെ വർക്കല വർക്കല ബീച്ചിലും പോയിട്ടുണ്ട് അവിടെ വർക്കല ക്ലിഫ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് അതും കാണാനായിട്ട് അപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന എന്താണ് പറയുക ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് തിരുവന എൻ്റെ ജില്ലയിൽ തന്നെ ഇതൊക്കെയാണ് ഓ പെട്ടെന്ന് ഓർമ്മ വരുന്നത്